ഞാൻ പിന്നെ ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ അവിടേയ്ക്ക് പോകാൻ വേണ്ടി കോഴിക്കോട് അതിൽത്തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടേയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഓൾറെഡി ആ ഒരു അയ്യായിരം രൂപ അവർക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പോ അല്ലെങ്കിൽ വാലറ്റിലേക്ക് ഞാന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ വിളിച്ച് നാല് ദിവസം മുമ്പ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻസൽ ചെയ്തിട്ടുണ്ടാരുന്നു വരണ്ട ഓൾറെഡി പൈസ പേ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ പൈസ അഡ്വാൻസായി തന്ന പൈസ റീഫണ്ട് ചെയ്യാൻ പറ്റുമോ

എനിക്ക് ആ പൈസ തിരികെ വേണമായിരുന്നു അതുകൊണ്ട് വിളിച്ച് ചോദിച്ചതാ കാരണം ഞാൻ പോയില്ലല്ലോ ഞാൻ നേരത്തെ വിളിച്ചു പറയുകയും ചെയ്തു പോവുന്നില്ല പക്ഷേ ഞാൻ ഓൾറെഡി പൈസ പേ ചെയ്തതുകൊണ്ട് അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോയെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്തായാലും എനിക്ക് ആ ഫണ്ട് വേണമായിരുന്നു ഞാൻ ഓൾറെഡി പിന്നെ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞു ഇല്ല ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പേ ഞാൻ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ റീഫണ്ട് ചെയ്യണമായിരുന്നു പൈസ ഇനി നിങ്ങള് എൻ്റെ അക്കൗണ്ടിലേക്ക്